നിങ്ങൾ ഈ അടുത്തിടെ സന്ദർശിച്ച ഒരു സ്ഥലത്തെ പറ്റി ഒരു വിവരണം നൽകാമോ ഞാൻ ഈ അടുത്തിടെ സന്ദർശിച്ച സ്ഥലമെന്ന് പറയുന്നത് കാന്തല്ലൂർ മൂന്നാർ മറയൂർ കാന്തല്ലൂർ ഈ പ്രദേശങ്ങളായിരുന്നു കാരണം ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും അധികം നല്ല ഒരു ക്ലൈമറ്റും നല്ലൊരു കാലാവസ്ഥയുമുള്ളൊരു പ്രദേശമാണ് അതുപോലെ തന്നെ സ്ട്രോബറിയും അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഒരു നല്ലൊരു പ്രദേശം കൂടിയാണ് കാന്തല്ലൂർ അതും സുഖകരമായ കാലാവസ്ഥ കാരണം ഞാനും കുടുംബവും ഒന്നിച്ച് കുടുംബവും സുഹൃത്തുക്കളും ഒന്നിച്ച് ഞങ്ങൾ ഏകദേശം പത്തു പതിനാറ് പേരോളം നമ്മളൊരുമിച്ചാണ് നമ്മളവിടെ പോയത് നമ്മളവിടെ താമസിക്കുകയും നമ്മൾ ഹോം സ്റ്റേ എടുക്കുകയും താമസിക്കുകയും നമ്മൾ ക്യാമ്പ് ഫയർ അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉൾപ്പടെ ഉള്ളൊരു ഒരടിപൊളി ഒരു ഒരു ട്രിപ്പായിരുന്നു മൂന്നാർ മറയൂർ കാന്തല്ലൂർ ട്രിപ്പ് അതോടൊപ്പം തന്നെയുന്നു വച്ചു കഴിഞ്ഞാൽ ഈ മറയൂരിൽ ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്ടാണ് മറയൂർ ശർക്കരയെന്നു പറയുന്നത് ആ ശർക്കരയുടെ പ്രൊഡക്ഷനും അതങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനും കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും ഉൾപ്പടെയുള്ളവർ കാണുകയും അവിടെ നിന്ന് നമ്മൾ മറയൂർ ശർക്കര ഉൾപ്പടെയുള്ള വിഭവങ്ങൾ വാങ്ങിക്കൊണ്ട് വരികയും ഉണ്ടായി കാര്യം ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മൊമെൻ്റായിരുന്നു ഒരു ഒരു യാത്രയായിരുന്നു ഈ ഈ മൂന്നാർ മറയൂർ കാന്തല്ലൂർ ട്രിപ്പെന്നു പറയുന്നത് ഏറ്റവും അധികം ജീവിതത്തിൽ എൻജോയ് ചെയ്തൊരു യാത്ര കൂടിയായിരുന്നു